പലപ്പോഴും ലേഖനങ്ങളും പഠനങ്ങളുമാണ് എൻ്റെ എഴുത്തിൻ്റെ വിഷയം അതുകൊണ്ടുതന്നെ മനസ്സിൽ രൂപപ്പെടുന്ന വിഷയം അത് ഒരു ലേഖനമായി അഥവാ പഠനമായി അതിൻ്റെ ഔട്ട് കം പുറത്തുവരുമ്പോൾ അതു വായനക്കാരിൽ ആ പഠനം ശ്രദ്ധിക്കുന്നവരിൽ എന്തു പ്രതിബലനം ഉണ്ടാക്കും എന്ന് മുൻകൂട്ടി കണ്ടു കൊണ്ട് അതിനാവശ്യമായ സോഴ്സുകൾ മൂലധന വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ ഞാൻ എല്ലായ്പ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കാറുണ്ട് എഴുത്തു പോരാ എന്നെനിക്കൊരിക്കലും തോന്നിയിട്ടില്ല എന്നാൽ ഓരോ വിഷയത്തെ ആധികാരികമായി അവതരിപ്പിക്കുന്നതിന് ആവശ്യമായ രേഖകൾ കണ്ടെത്തുന്നതിൽ എൻ്റന്വേഷണം കൂടുതൽ ജാഗ്രവത്താക്കാമായിരുന്നു അല്ലെങ്കിൽ ജാഗ്രവത്താക്കേണ്ടതുണ്ട് എന്നു തോന്നിയിട്ടുണ്ട് പലപ്പോഴും സമയക്കുറവും രേഖകൾ എവിടെയാണ് ഉള്ളത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തതിൻ്റെ പ്രയാസങ്ങളും അടിസ്ഥാന വിവരശേഖരണത്തിന് തടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ അടിസ്ഥാന വിവരശേഖരണത്തിനു വേണ്ടി ചിലവഴിക്കുന്ന സമയം അധികരിച്ചു പോകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വേഗത്തിൽ പഠനങ്ങളോ ലേഖനങ്ങളോ പുറത്തു കൊണ്ടുവരാൻ പ്രായോഗികമായി തടസ്സങ്ങൾ നേരിടാറുമുണ്ട് പൊതുവേ സാമൂഹ്യ രാഷ്ട്രീയ പാരിസ്ഥിതിക വിദ്യാഭ്യാസ വൈജ്ഞാനിക മതപര മതപരമായ മേഖലകൾ എൻ്റെ എഴുത്തിൻ്റെ വിഷയങ്ങൾ ആകാറുണ്ടെങ്കിലും കൂടുതൽ അതിൽ ഊന്നൽ കൊടുത്തിരിക്കുന്നത് മതപരമായ വിഷയങ്ങളിൽ ആണ് എന്നു തുറന്നു പറയേണ്ടതുണ്ട് അപ്രകാരമുള്ള വിഷയങ്ങളിൽ സ്വാഭാവികമായും പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് മതപരമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലോ ആ തലത്തിൽ ചിന്തിക്കുന്നവരിലോ നിന്ന് മാത്രമായിരിക്കും എന്നുള്ളതും വസ്തുതയാണ് ആ തലത്തിൽ ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും ആ കാര്യം ശ്രദ്ധിക്കുന്നവരുമായ പലരും വളരെ പ്രോത്സാഹന ജനകമായ മറുപടിയാണ് തന്നിട്ടുള്ളത് ചിലപ്പോൾ അത് വലിയ തർക്ക വിതർക്കങ്ങൾക്ക് ഇടയാക്കിയ ഇടയാക്കാൻ സാധ്യതയുണ്ടായിരുന്ന വിഷയങ്ങൾ പോലുമുണ്ട് ചില വിഷയങ്ങൾ തർക്കവിതർക്കങ്ങൾക്കു കാരണവുമായിട്ടുണ്ട് ഏതെങ്കിലുമൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ നൽകുന്ന പഠനം ആ വിഷയത്തെക്കുറിച്ചുള്ള മറ്റു ചില ആസ്പറ്റുകൾ കളിൽ ഊന്നൽ കൊടുക്കുന്നവർ അത് സ്വീകാര്യമായി കരുതുകയോ നമ്മുടെ വാദങ്ങൾക്ക് അനുസൃതമായി അവരുടെ നിലപാടുകൾ രൂപപ്പെടുത്തുകയോ ചെയ്യണമെന്ന് നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ല ചരിത്രം എല്ലായിപ്പോഴും എഴുതുന്നയാൾക്ക് ലഭ്യമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തുന്ന ഒന്നാണ് നമ്മൾ രേഖപ്പെടുത്തുന്ന ചരിത്രം അത് അതെപ്പടി മറ്റൊരു വ്യക്തിയുടെ ചിന്താഗതികൾക്കോ അനുഭവങ്ങൾക്കോ അനുശ്രുതമാകണമെന്നില്ല എന്നുള്ളതു കൊണ്ട് അവർ അതിനെ ചിലപ്പോഴെങ്കിലുമൊക്കെ ചോദ്യം ചെയ്യാൻ ഇടയുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അത്തരം ചോദ്യം ചെയ്യലുകളുണ്ടായിട്ടുണ്ട് തർക്ക വിതർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ തർക്ക വിതർക്കങ്ങൾക്കപ്പ് ഒടുവിൽ പലപ്പോഴും വിജയം എൻ്റെ ഭാഗത്തു തന്നെ എനിക്ക് നേടിയെടുക്കാൻ എനിക്ക് പറ്റിയിട്ടുമുണ്ട്